പറഞ്ഞോളൂ

ആ പറഞ്ഞോളൂ ആണോ പനിയുണ്ടോ ഇപ്പം വേറെയെന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ട് മേല് വേദന അങ്ങനെ വേറെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ

കുറച്ച് എത്ര ദിവസമായി പോസിറ്റീവ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ എത്ര ദിവസമായി അതു ശരി ആ ഇപ്പം എന്താ ഇപ്പം പറയുക വച്ചിട്ടുണ്ടെങ്കിൽ പാരസെറ്റമോള് കഴിക്ക് പനിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പനിക്കുമ്പം പിന്നെ രണ്ട് മൂന്ന് മരുന്ന് എന്തായാലും വേറെ എക്സ്ട്രാ തരാം പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ല തിളപ്പിച്ച് അതായത് ഒത്തിരി തണുത്ത വെള്ളം കുടിക്കാതെ കുറച്ച് ചൂടുള്ള വെള്ളം കുടിക്കുക അതേപോലെതന്നെ പിന്നെ നന്നായിട്ട് സാനിറ്റൈസറ് യൂസ് ചെയ്യുക ആരും ആയിട്ടും സമ്പർക്കം ഇല്ലാതെ നോക്കുക വീട്ടിൽ കുറേ ആൾക്കാരുള്ള വീട്ടിലാണോ റൂട്ടീൽ നിന്ന് റൂമിൽ നിന്ന് പുറത്തൊന്നും പോകാതെ ആ റൂമിൽത്തന്നെ സ്റ്റേ ചെയ്യാൻ നോക്കുക വേറെ വല്ല ബുദ്ധിമുട്ടും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വല്ല ബുദ്ധിമുട്ടും അങ്ങനെ സ്മെല്ല് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ

അപ്പം നല്ല ചൂടുള്ള ഭക്ഷണം എന്ത് സാധനമാണെങ്കിലും ചൂടുള്ളത് കഴിക്കുക പിന്നെ രണ്ട് മൂന്നു നേരം കുളിക്കുക സാനിറ്റൈസറ് നന്നായിട്ട് യൂസ് ചെയ്യുക എങ്ങനെ എന്ത് തൊട്ടാലും സാനിറ്റൈസർ യൂസ് ചെയ്യുക വേറെ വല്ല കുഴപ്പം ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര ക്ഷീണമോ ഭയങ്കര ഇതാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം ഇപ്പോൾ തത്കാലം വലിയ കുഴപ്പം ഇല്ലെങ്കിൽ മറ്റേ പാരസെറ്റമോള് കഴിച്ച് വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്താൽ മതി

എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ലലോ വേറെ ആർക്കെങ്കിലുമുണ്ടോ വീട്ടിൽ ഇല്ലലോ ഓക്കെ എന്നാൽ എന്തായാലും മരുന്നുള്ളത് കണ്ടിന്യൂ ചെയ്യുക പിന്നെ ചൂട് വെള്ളം നന്നായിട്ട് കഴിക്കുകയോ പിന്നെ കുടിക്കാൻ നോക്കുക ഫുഡും നല്ല ചൂടുള്ളത് തണുത്തതൊന്നും കഴിക്കേണ്ട രണ്ടു നേരം കുളിച്ച് അത്യാവശ്യം സാനിറ്റൈസറും യൂസ് ചെയ്യുക അതൊക്കെ ചെയ്തിട്ട് നോക്കാം കുറഞ്ഞില്ലേ നമുക്ക് എന്താണെന്ന് വച്ചാൽ ചെയ്യാം